എൻ്റെ പ്രദേശത്ത് ഞാൻ ഒരുപാട് പക്ഷികളെയും കിളികളെയും ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട് കാക്ക കുയില് ചെമ്പോത്ത് മയില് അങ്ങനെ ഒരുപാട് പക്ഷികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടി വളർത്തുന്നുണ്ടായിരുന്നു അതിനെ പോളിനേറ്റ് ചെയ്യാൻ ഒരുതരം കുരുവികൾ എല്ലാ ദിവസവും വരുവായിരുന്നു ഒരുപാട് കി വൈകി വൈകുന്നേരം ആകുമ്പോൾ ഒരുപാട് കിളികൾ ഒരുമിച്ച് ഒരു കുരുവി ചെറിയ കുരുവികൾ ഒരുമിച്ച് വന്ന് മയിലിൻ്റെ അവിടെ ഇരുന്ന് ഒരു സൗണ്ട് ഉണ്ടാക്കാറുണ്ടായിരുന്നു ഞങ്ങളതിന് ഭക്ഷണവും വെള്ളവും എല്ലാം വച്ചു കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ എന്നും രാവിലെ ഇപ്പോൾ മയില് വരാറുണ്ട് മയില് ഒര് സൗണ്ട് ഒക്കെ ഉണ്ടാക്കി ഞാൻ എന്നും കാണാറുണ്ട് മയില് ആണും പെണ്ണിനേയും കാണാറുണ്ട് അവർ ഒരു കൂട്ടമായിട്ടാണ് വരിക തൊട്ടപ്പുറത്ത് പറമ്പുണ്ട് അപ്പം ആവിടെ പോയി എന്ത് ഭക്ഷണം അന്വേഷിച്ച് വരുന്നതായിരിക്കും